നമ്മുടെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാല് മലയാള ഭാഷ അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം പോലെയാണ് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആരും അങ്ങനെ മലയാള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപയോഗിക്കുന്നില്ല അതാണ് മെയിനായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനത്തെ ഭാഷകൾ ഒക്കെ ആയി തുടങ്ങി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു വലിയ ആൾ ആണെന്നുള്ള ഒരു അഹംഭാവം ഒക്കെ കാണിക്കണങ്കില് ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാലേ അവർക്ക് ഒരു വലിയ ഒരു സംഭവമാണ് എന്നൊക്കെ പറയാൻ പറ്റോളു അപ്പോൾ നമ്മള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മലയാളം സംസാരിച്ച് കഴിഞ്ഞാല് ഓ അവനേതൊ കൂറ ചങ്ങായിയാണ് അങ്ങനെയൊക്കെയാണ് പറയുക അപ്പം നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും മലയാളം ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കില് കൂടുതലായിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം നമ്മൾ പരിപൂർണമായിട്ടും മലയാളത്തിലേക്ക് മാറണം ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വെക്കും ഇപ്പോൾ നമ്മള് മലയാള ഭാഷയൊക്കെ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാല് എന്തേലും ഫൈനും കാര്യങ്ങളൊക്കെ വെക്കാം അങ്ങനെ നമ്മളെ വീട്ടുകാര് തന്നെ മലയാള ഭാഷ മാത്രം സംസാരിക്കാൻ വേണ്ടീട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ഈ ഒരു ഫൈനിൻ്റെ പേടികൊണ്ടൊക്കെ നമുക്ക് ചിലപ്പം മലയാളം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മലയാളം മാത്രമായിട്ടൊക്കെ നമുക്ക് പറയാനോക്കെ പറ്റും ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മോശം എന്നല്ല പക്ഷെ മലയാള ഭാഷയെ താഴ്ത്തി കെട്ടുന്ന രീതിയിലൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ തന്നെ ഇനി അങ്ങോട്ട് നമ്മള് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഘടന ഘടകം ഒക്കെ ഉണ്ട് അപ്പം നമ്മള് വരുന്ന തലമുറയിനെ ഒക്കെ നല്ല രീതിയില് പ്രോത്സാഹിപ്പിച്ച് വിടണം